കുടുംബത്തിലെ ഒരു വിവാഹത്തില് പങ്കെടുത്ത അനുഭവം പറയാം അത് നല്ലൊരനുഭവമായിരുന്നു പിന്നേ എന്താ ഞങ്ങളൊരു ഡ്രെസ്സെടുക്കാൻ പോയി ഞങ്ങളെല്ലാവരും കുറേ എല്ലാവരും വീട്ടിലെല്ലാവർക്കും കുട്ടികൾക്കും ഒക്കെ ഡ്രെസ്സും ഇനിക്കും എല്ലാവർക്കും ഡ്രെസ്സൊക്കെ എടുത്തു പിന്നെ ഞങ്ങള് കുറേ അവിടെ പോയി പുറത്തുനിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ കല്യാണമുള്ള വീട്ടിലൊക്കെ പോയി അവടെ കുറേ നേരം നിന്ന് പിന്നെ കുറേ നേരം സംസാരിച്ച് കുറേ കഴിഞ്ഞിട്ടാണ് അവിടന്ന് പോന്നത് പിന്നെ കല്യാണത്തിന് കല്യാണത്തിൻറ്റന്ന് ഞങ്ങള് രാവിലെ നേരത്തെ പോയി പുതിയത് ഡ്രസ്സ് എല്ലാരും പുതിയ ഡ്രെസ്സൊക്കെയിട്ട് രാവിലെപോയി പോയിട്ട് അപ്പോഴേക്ക് അവിടെ എല്ലാവരുമുണ്ടായിരുന്നു അവരായിട്ടൊക്കെ സംസാരിച്ചൊക്കെ ഫോട്ടോ എടുത്തതൊക്കെ അതൊക്കെ നല്ലൊരു നല്ലൊരു അനുഭവമായിരുന്നു പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ വൈകീട്ടാണ് ഞങ്ങള് പോന്നത് അവിടുന്ന് അങ്ങനെ പോന്നത് പിന്നെ അതുകഴിഞ്ഞു പിന്നേ എന്താണ് പിറന്നാള് ജന്മദിനം ആ സ്വർണം എടുക്കാൻ പോയി പിന്നേ സ്വർണമെടുക്കാൻ പോയി അതൊക്കെ എല്ലാവരും കൂടി സെലക്റ്റ് ചെയ്തു എല്ലാം നല്ലത് നോക്കിയിട്ടൊക്കെ എല്ലാവരും കൂടി സെലക്റ്റെയ്ത് അതൊക്കെ കഴിഞ്ഞു പിന്നെ എന്താ ഇതിനെ കുറിച്ച് പറയുകയാണെങ്കില് പിന്നേ പറന്നാളിനെ കുറിച്ച് പറയാണെങ്കില് ചെറിയ കുട്ടീൻറ്റെ പിറന്നാള് ഞങ്ങള് ഗംഭീരമായിട്ട് കഴിച്ചു പിന്നെ ഡ്രെസ്സൊക്കെ കുട്ടിക്ക് ഡ്രസ്സൊക്കെ എടുത്തു പിന്നെ ബിരിയാണി വെച്ചു കേക്ക് മുറിച്ചു കുട്ടീൻറ്റെ ഫ്രണ്ട്സ്സൊക്കെ വന്നു പിന്നെ സദ്യയുണ്ടാക്കി സദ്യ പറ്റണോലുണ്ട് സദ്യ പറ്റാത്ത ആൾക്കാരും ഉണ്ടായിരുന്നു അല്ല ബിരിയാണി ഇറച്ചി കറി ഒന്നും കൂട്ടാത്ത ആൾക്കാരുണ്ടായിരുന്നു ഓല്ക്ക് ഞങ്ങള് സദ്യയുണ്ടാക്കി രണ്ടു മൂന്ന് തരം പായസമുണ്ടാക്കി അതൊക്കെ അവിയല് വച്ചു എല്ലാവരും വന്നു പിന്നെ എല്ലാവരുംകൂടി കുട്ടീൻറ്റെ ഫ്രണ്ട്സും അടുത്തുള്ളാൾക്കാരും എല്ലാവരും കൂടിയിട്ട് എല്ലാവരും ഒപ്പമിരുന്ന് ഭഷണം കഴിച്ചു നല്ല രസമായിരുന്നു പിന്നെ കേക്ക് മുറിച്ചു മുട്ടായി കൊടുത്തു എല്ലാവർക്കും അടുത്തുള്ളവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും പാട്ടും എല്ലാതും ഡാൻസും പാട്ടും ഒക്കെ നല്ല രസമായിരുന്നു നല്ല രസത്തില് എന്താണ് അതും കഴിഞ്ഞു അതും നല്ലൊരനുഭവമായിരുന്നു